സാങ്കേതിക വിദ്യ കാരണം പല കുടുംബങ്ങളും സമയം പരസ്പരം ചിലവഴിക്കുന്നത് കുറഞ്ഞു വരുന്നു കാരണം മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും അങ്ങനെ പല ഇലക്ട്രോണിക് വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കാരണം ആളുകൾക്ക് അവരുടെ ഫാമിലിയുമായിട്ട് കുടുംബങ്ങളായിട്ട് സമയം ചിലവഴിക്കാൻ ബുദ്ധിമുട്ടാകുന്നു സമയം കിട്ടാതെ വരുന്നു അപ്പം ഇത് അതുപോലെ തന്നെ വ്യക്തിജീവിതങ്ങളെയും അത് ബാധിക്കുന്നു കാരണം കാരണം അത് അവരുടെ സമയത്തെ നശിപ്പിക്കുന്നു നശിപ്പിക്കുകയും അവരുടെ അവർ അവരുടെ ജോലിയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ കാരണം ഇവർ ഇവരുടെ ഇവർ ചെയ്യേണ്ടിയിരിക്കുന്ന ജോലിയിൽ ശ്രദ്ധിക്കേണ്ടതിന് പകരം അവർ അവരുടെ മൊബൈൽ ഫോണുകളിൽ സമയം ചിലവ് ചിലവിടുന്നു അത് കാരണം അവർക്ക് വേണ്ടത്ര സമയം പോരാതെ വരുന്നു ഇവർ മൊബൈൽ ഫോണുകൾ കാരണം പലതരം കപടങ്ങളും സംഭവിച്ച് വരുന്നു സൈബർ മോഷണങ്ങളും സൈബർ ഉപദ്രവങ്ങളും വർധിച്ചു വരുന്നു ബാങ്ക്കളെയും ബാങ്ക്കളെയും സമ്പാദ്യങ്ങളെയും അവർ അവർ വട്ടമിടുകയും അതിനെ കവർച്ച ചെയ്യാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നു ഇലക്ട്രോണിക് വഴി ഫോൺ കോളുകളിലൂടെ അവർ ഒ റ്റി പി ചോദിക്കുകയും അതുമൂലം ബാങ്കുകൾ അതുമൂലം ബാങ്കുകളെ ബാങ്കുകളിൽ കടന്ന് ബാങ്കുകളുടെ സെർവറുകളിൽ കടന്ന് അവർ ഡീറ്റെയിൽസ് എടുക്കുകയും ചെയ്യുന്നു ഇതുകൊണ്ട് ഇതെടുത്ത് ഇതെടുത്ത് അവർ പൈസ മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു ഈ പഠനം പിള്ളേരെയും വളരെ അധികം ബാധിക്കുന്നു യുവതതലമുറയെ വളരെയധികം ബാധിക്കുന്നു പിള്ളേര് മൊബൈലുകളിലും സമയം ചിലവിടാൻ തുടങ്ങുന്നു അവർ അവരുടെ ദിനംപ്രതി ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിനു പകരം അവർ മൊബൈൽ ഫോണുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇതിൽ അമിതമായ അമിതമായ ഫോൺ ഉപയോഗം അവരുടെ കണ്ണുകൾക്കും അവരുടെ മനസ്സിനും ചിന്താഗതിക്കും ദോഷമായി വരുന്നു അവരുടെ ചിന്താഗതിയെ അത് മാറ്റുകയും അവരുടെ പഠനത്തെ അത് ബാധിക്കുകയും ചെയ്യുന്നു അവരുടെ ഉറക്കത്തെ അത് നശിപ്പിക്കുകയും ചെയ്യുന്നു

പലർക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുകയും ചെയ്യുന്നു കുറെ നേരം ഒരിടത്തു തന്നെ ഇരിക്കുന്നത് കാരണം വണ്ണം കൂടുകയും അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു കുറെ നേരം മൊബൈൽ ഉപയോഗിക്കുന്നത് കാരണം അവർക്ക് കണ്ണിന് പ്രശ്നങ്ങൾ വരുകയും രാത്രിയിൽ ഉറക്കമില്ലായ്മയും അങ്ങനത്തെ പലവിധ പ്രശ്നങ്ങൾ വരുകയും ചെയ്യുന്നു അവർ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ മൊബൈലിൻറെ ഉപയോഗം വളരെ വർധിക്കുകയും അവരുടെ ദിനംപ്രതി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള സമയം വളരെ കുറയുകയും ചെയ്യുന്നു അത് കൊണ്ട് അവർക്ക് പുതിയ പുതിയ കഴിവുകളെ ഉണർത്താനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനോ ഉള്ള സമയം കിട്ടുന്നില്ല അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ ഉള്ള സമയം അവർക്ക് തികയാതെ വരുകയും ചെയ്യുന്നു തികയാതെ വരുകയും ചെയ്യുന്നു പലരും ഫോണുകൾ കാരണം അവരുടെ ജീവൻ തന്നെ ഒടുക്കിയ സംഭവങ്ങൾ ഉണ്ട് പലതരം സൈബർ മോഷണങ്ങളും ഒക്കെ കാരണം സൈബർ മോഷണങ്ങൾ ഒക്കെ വളരെ സുലഭമായി വന്നിരിക്കുകയാണ് പലരും ഫോണുകൾ അക്സസ്സ് ചെയ്യുകയും അതിനെ പിടിച്ച് ഫോണുകളിൽ സമ്മതം കൂടാതെ പ്രവേശിക്കുകയും അതിലെ രഹസ്യ വസ്തുക്കൾ എടുക്കുകയും അതിനെ ദുരുപയോഗം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു ഇത് കാരണം ആളുകൾക്ക് ഫോൺ ഉപയോഗത്തിനോടുള്ള വിശ്വാസം കുറഞ്ഞ് വരുകയും ചെയ്യുന്നു എന്നാൽ ഫോൺ ഉപയോഗം കുറക്കുന്നതും ഇല്ല പക്ഷേ എല്ലാവരും ഫോണിനെ വല്ലാതെ ആശ്രയിക്കുന്നത് കാരണം ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഒരു ഭീഷണിയായും വിപത്തായും ഒക്കെ വരുകയാണ് ഫോണിൽ ഫോൺ ഫോണിന് അതിന്റെതായിട്ട് ഉള്ള നല്ല വശങ്ങളും ദൂഷ്യ വശങ്ങളും ഉണ്ട് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് വ്യക്തിപരമായും കുടുംബജീവിതത്തിലും നല്ല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അവർക്ക് ദൂരെ ഉള്ള ഭാര്യ ഭർത്താക്കന്മാർക്കും കുടുംബങ്ങൾക്കും പരസ്പരം സംസാരിക്കുവാനും കാണുവാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിലും പലതരം ഉപയോഗങ്ങൾ ഉണ്ടാകുന്നു ജോലിയിൽ ആണെങ്കിലും അവർക്ക് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് ആൾക്കാരെ ആൾക്കാരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഇവർ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഇവർ സാ സങ്കേതമായി സാങ്കേതികമായി വളരെ അറിവുള്ളവർ ആയി ആവുകയാണ് പുതിയ തലമുറക്കും ഇതുപോലെ സാങ്കേതിക വിദ്യ പഠിപ്പിച്ച് കൊടുക്കേണ്ടത് അനിവാര്യമാണ് അതോടുകൂടി അതോടൊപ്പം അതിൻ്റ ദൂഷ്യവശങ്ങൾ അവർക്കും പറഞ്ഞ് കൊടുക്കേണ്ടതാണ് സാങ്കേതികവിദ്യ പല രീതിയിലും മനുഷ്യനെ സഹായിക്കുന്നു ഉണ്ട് അതുപോലെ തന്നെ മനുഷ്യനെ പ്രശ്നത്തിലാക്കുന്നതും ഉണ്ട് ചില ചില ആപ്പുകൾ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ ചോദിക്കുകയും അവരുടെ സ്ഥലവും കാര്യങ്ങൾ ഒക്കെ ചോദിക്കുകയും അത് പുറത്ത് വിടുകയും ഒക്കെ ചെയ്യുന്നു ആൾക്കാരുടെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും അങ്ങന പലതരം ഇൻഫൊർമേഷനും കാര്യങ്ങളൊക്കെ അവരുടെ സമ്മതം ഇല്ലാതെ പുറത്തു വിടുകയാണ് ഇത് പ്രായമായവർക്കും ഒക്കെയും ഒരു മുതൽ മുതൽക്കൂട്ടാണ്

ഉത്തരവാദിത്തത്തോടെ മൊബൈൽ ഉപയോഗിക്കുന്നത് എപ്പോഴും വ്യക്തി ജീവിതത്തിനും കുടുംബ ജീവിതത്തിലും നല്ലതാണ് അതിന് സാങ്കേതിക സാങ്കേതിക വിദ്യാഭ്യാസം വളരെ ആവശ്യമാണ് അത് തടസ്സം അത് തടസ്സപ്പെടുത്തുവാനും അതുപോലെ തന്നെ എളുപ്പമാക്കുവാനും സഹായിക്കുന്നു